കായിക വിനോദത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഏറ്റവും നല്ല ഗുണം ഗുണം കുട്ടികൾക്ക് ആയാലും മുതിർന്നവർക്കായാലും ശാരീരികമായി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ

സെക്കൻ്റ് കിട്ടി അപ്പോൾ സമ്മാനം കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ വീട്ട്കാർകൊക്കെ നല്ല സന്തോഷം തോന്നി പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് മത്സരത്തിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനൊന്നും പങ്കെടുക്കാതെയായി ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഭർത്താവിനൊന്നും വലിയ താൽപ്പര്യം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഉപേഷിച്ചു ഇപ്പം കുട്ടികളൊക്കെ ആയപ്പോൾ കുട്ടികൾക്ക് കുട്ടികളെ കളിക്കുക ഓട്ട മത്സരത്തിലും ചെറിയ ഇതിലൊക്കെ പങ്കെടുത്തു സമ്മാനങ്ങളൊക്കെ ആയി വരുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട് പിന്നെ കുട്ടികൾക്ക് ആയാലും നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തത് അവർ ചെയ്തു വരുമ്പോൾ നമ്മൾക്ക് അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് ഇപ്പോൾ ഞാൻ കായികപരമായിട്ട് ഒന്നും ചെയ്യാറില്ല പിന്നെ അത് അതിന് അന്ന് ചെയ്യാത്തത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് പിന്നെ ഇത് ശരീരത്തിന് ശരീരം നല്ല ഇളകി നല്ല ഇതൊക്കെ ആവുമ്പോൾ നല്ല ഇതൊക്കെ കിട്ടിയിരുന്നു കായിക പരമായിട്ട്